എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും നല്ലൊരു കാഴ്ച എന്ന് പറയുന്നത് ഞങ്ങൾ പൊന്മുടിയിൽ പോയപ്പോൾ കണ്ട കാഴ്ചകളാണ് കാരണം അത്രയും നല്ലൊരു കുന്നിൻ്റെ മുകളിൽ നിന്ന് നമ്മൾ ആകാശം അതായത് ആകാശം നമുക്ക് കീഴെ വന്ന ഒരു അനുഭവമായിരുന്നു അതേപോലെ മേഘങ്ങൾ മേഘങ്ങൾ ഫുൾ നമുക്ക് മേഘങ്ങൾ നമ്മളെ തഴുകി പോകുന്നൊരു ഫീൽ ആണ് നമുക്കവിടെ നിൽക്കുമ്പോൾ ഉണ്ടാവുന്നത് അതേപോലെ അവിടുത്തെ വെള്ളച്ചാട്ടമാണെങ്കിലും അതെല്ലാം നമുക്ക് കണ്ണിനെന്തോ അത്രയ്ക്ക് കുളിർമ നൽകുന്ന ഒരു കാഴ്ച ആയിരുന്നു വെള്ളച്ചാട്ടവും മഞ്ഞും മേഘങ്ങളും എല്ലാം ചേർന്ന് വളരെ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരനുഭവമാണ് പൊൻമുടിയിൽ പോയപ്പോൾ ഉണ്ടായത് അതേപോലെ തന്നെയാണ് അവിടേക്കുള്ള യാത്രയും വളരെ നല്ലത് അതായത് ഓ റൂട്ടാണെങ്കിലും ഗതാഗതമാണെങ്കിലും എല്ലാം വളരെ നല്ലൊരു അനുഭവമായിരുന്നു എനിക്ക് ഉണ്ടായിരുന്നത് അതേപോലെ തന്നെയാണ് നമ്മൾ കോവളത്ത് സൂര്യാസ്തമയം കാണാൻ പോയത് അതും ഒരിക്കലും എനിക്ക് മറക്കാൻ പറ്റാത്തൊരു കാഴ്ചയാണ് കാരണം നമ്മുടെ സൂര്യൻ കടലിലസ്തമിക്കുന്ന കാഴ്ച എന്ന് പറയുന്നത് അതൊരു കാണേണ്ട കാഴ്ച തന്നെയാണ് ഒരു ചെന്തീ കളറിൽ നിൽക്കുന്ന സൂര്യൻ കടലിലങ്ങ് മുങ്ങി താഴുന്നത് നമ്മൾ പരിസരം പോലും മറന്ന് നമ്മൾ കണ്ടിരിക്കും എന്ന് പറയില്ലേ അതേപോലെയാണ് അതൊന്നും എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത കാഴ്ചകളാണ്